ഹലോ എക്സ് വൈ ഇസഡ് പിക്കപ്പ് ഏജൻസി അല്ലേ നാളെ ഒമ്പതരയ്ക്ക് പട്ടാമ്പി എത്തണം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഷൊർണ്ണൂരിൽ എട്ടു മണിക്ക് വന്ന് പിക്ക് ചെയ്യണം എന്നാലെ കറക്ട് ഒമ്പതരയ്ക്ക് അവിടെ നേരമൊന്നും വൈകാതെ കറക്ട് സമയത്തിന് എത്തുകയുള്ളൂ ഓ ഒരു ഇൻ്റർവ്യൂ അറ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരത്തെ ഇറങ്ങണം ഒരു ഫൈവ് മിനിറ്റ്സ് മുന്നേ ഇറങ്ങിക്കോളു ഓക്കെ താങ്ക് യു